എന്റെ ഉപജീവന മാര്ഗമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഷോപ്പാണ് ഞങ്ങൾ പേയ്ന്റിന്റെ ഒരു ഷോപ്പാണ് നടത്തുന്നത് അവിടെ മസ്റ്റായിട്ടും നമുക്ക് എലക്ട്രിസിറ്റി ആവശ്യമുണ്ട് അത് നമുക്ക് മെഷ്യന് വര്ക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളതിൽ പേയ്ന്റ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് വൈദ്യുതി ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുപോലന്നെ ബില്ലിങ്ങിനും നമുക്ക് കംമ്പ്യൂട്ടറിൽ ബില് ചെയ്യുന്നതിനും വൈദ്യുതി ഇല്ലെങ്കിൽ കസ്റ്റമേര്സ് കൂടുതല് ടൈമവിടെ നിക്കണ്ടി വരും ഇത് പേയ്ന്റ് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ര ഒ മിഷ്യന്സിലാണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കവിടെ വൈദുതിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് വൈദ്യുതി ഇല്ലാത്തപ്പോൾ നമ്മൾ അതിന് വേണ്ടീട്ട് പകരം നമ്മൾ ഇന്വേട്ടറ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാഹചര്യമനുസരിച്ചിട്ട് മിക്കവാറും ടൈമുകളിൽ കാരണം ഇപ്പോൾ വൈദ്യുതി ഉണ്ടാവാറില്ല്യാ ആ ടൈമുകളിലൊക്കെ നമുക്ക് ഇന്വേട്ടറ് വാങ്ങി മിക്ക വീടുകളിലും ആള്ക്കാരും അതുപോലന്നെ സ്ഥാപനങ്ങളിലും ഇന്വട്ടറുപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കില് നമുക്ക് വളരെയധികം സമയനഷ്ടം ഉണ്ടാവുന്നുണ്ട്